വാഗമണ്ണില് ടൂര് പോയിരുന്നെന്ന് പറഞ്ഞില്ലേ ആ അനുഭവമൊന്ന് പറയാമോ വാഗമണ്ണിലെ ട്രിപ്പ് വളരെ നല്ലതായിരുന്നു ഞങ്ങള് മൂന്ന് ഫാമിലി ആയിട്ട് ആണ് പോയത് മൂന്നുപേരുടെയും കാറില് ഞങ്ങള് എൻ്റെ കാറില് ഞാനും എൻ്റെ ചേട്ടനും കൊച്ചും അമ്മയും അച്ഛനും പിന്നേ കുഞ്ഞമ്മയുടെ കാറില് കുഞ്ഞമ്മയും കൊച്ചച്ചനും മകളും പിന്നെ മാമനും മാമൻ്റെ കാറില് മാമനും മാമിയും പിന്നെ അമ്മാവന്റെയും മാമന്റെയും മാമിയുടെയും രണ്ട് മക്കളും അങ്ങനെ ഞങ്ങള് ഏകദേശം പതിനൊന്നുപേരുണ്ടായിരുന്നു ഞങ്ങള് പതിനൊന്നുപേരുംകൂടെ മൂന്ന് കാറിലാണ് പോയത് ഞങ്ങള് രാവിലെ രാവിലെയല്ല വൈകിട്ടാ പോയതിവിടെന്ന് വൈകിട്ടൊരു ആഞ്ചുമണിയൊക്കെ ആയപ്പോള് ഇവിടുന്ന് യാത്രതിരിച്ചു ഏകദേശം ഒരു പത്ത്നാനൂറ് കിലോമീറ്ററുണ്ടെന്നു തോന്നുന്നു തിരുവനന്തപുരത്ത്നിന്ന് വാഗമൺ വരെ ഞങ്ങള് രാവിലെ ഇവിടെനിന്ന് അല്ല വൈകിട്ടിവിടുന്ന് അഞ്ചുമണിക്ക് പുറപ്പെട്ടു ഏകദേശം രാവിലെ ആവാറായതോടുകൂടി അവിടെ എത്തിയെന്ന് തോന്നുണു അല്ല ഒരു മൂന്ന്മണി ആ സമയം അതാണ് എത്തിയത് ഭയങ്കര ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു വളരെ സ്മൂത്തായിട്ടുള്ള യാത്ര ആയിരുന്നു പിന്നെ യാത്രയില് കുറച്ച് ഞങ്ങള്ക്കും എല്ലാവർക്കും കുറേ നേരം അങ്ങനെ അങ്ങനെ യാത്രചെയ്തതുകൊണ്ട് ആ ഇരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങള് ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊല്ലത്തൊക്കെ എത്തി കൊല്ലത്തെത്തിയിട്ടും ഞങ്ങളവിടെനിന്ന് ആഹാരം കഴിച്ചു ആഹാരം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വണ്ടിയില് കയറി പിന്നെയും കുറേദൂരം യാത്രചെയ്തു അതിനിടയ്ക്ക് പലയിടത്തായിട്ട് നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചു എല്ലാവർക്കും ഇങ്ങനെ വണ്ടിയില്ത്തന്നെ ഇരുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു ഛർദി വരാനുള്ളൊരു ചാൻസുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെല്ലാരും നിർത്തി നിർത്തി ചായയും മുട്ടായിയും ഒക്കെ കഴിച്ച് കഴിച്ചാണ് പോയത് അവിടെനിന്ന് ഏകദേശം കൊല്ലം പത്തനംതിട്ടയൊക്കെ ആയപ്പോഴത്തേക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ടങ്ങു മാറി നല്ല മഴയായിരുന്നു വഴിമുഴുക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊരു വലിയ നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു ഭയങ്കര മഴയും അതും പത്തനംതിട്ട ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അവിടെയെല്ലാം നല്ല മരങ്ങളും കുറേ കുറേ ദൂരം ഞങ്ങളേകദേശം കാട്ടിനകത്തൂടൊക്കെയാണ് സഞ്ചരിച്ചത് അപ്പോള് രണ്ട്സൈഡിലും മരങ്ങളും അതിനിടയിൽ ആ ആ മഴയും അതിനിടയിലുള്ള ആ യാത്രയും വളരെ സൂപ്പറായിരുന്നു ഞങ്ങള് പത്തനംതിട്ട ഗവി ടച്ച് ചെയ്തോന്ന് സംശയമാണ് നല്ല തണുപ്പുണ്ടായിരുന്നു കാറിലെ എ സിയും പുറത്തെ മഴയുംകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു എ സി ഓഫെയ്തപ്പോഴത്തേക്കും കണ്ണാടിയുടെ ഗ്ലാസ്സിലേകദേശം ഒരു പുകമറപോല സംഭവിച്ച് അതുകൊണ്ട് എ സിയിട്ടേ പോവാന് പറ്റിയുള്ളു അതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു മകൻ കുറച്ച് ദൂരം യാത്രചെയ്തപ്പോള്ത്തന്നെ അവന് ഉറങ്ങി പിന്നെ ഞങ്ങള് ഈ വാഗമണ്ണിലോട്ട് ആ ഹൈ റേഞ്ചിൽ കയറുന്നത് ഒക്കെ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോള് കുറച്ച് പേടിയുണ്ടായിരുന്നു ഇത്രയും ദൂരെ ഇത്രയും രാത്രിയില് ഈ ഹൈ റേൻജ് കയറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് ഇതെല്ലാം ഞങ്ങള്ക്ക് അറേഞ്ചെയ്ത് തന്നത് അപ്പോള് പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര സപ്പോട്ടായിരുന്നു അപ്പോള് രാവിലെ ഞങ്ങള് രാവിലെ ഞങ്ങള്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചുമെല്ലാം ആ പുള്ളി തന്നെ ഞങ്ങള്ക്ക് അറേഞ്ചീയ്തുതന്നു ഞങ്ങള് ഒരുമണിക്ക് പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു കുഴപ്പമില്ല ഞാനിവിടെ തന്നെ നിങ്ങളെ കാത്തുനില്ക്കാം കുഴപ്പമില്ല പയ്യെ വന്നാല് മതി ഒരുപാട് മഴയല്ലേ ഒരുപാട് സ്പീഡിലൊന്നും വരണ്ട എന്നു പറഞ്ഞു നല്ലൊരു ഹൈ റേൻജ് കയറുംതോറും ഒരു വല്ലാത്തൊരു കോട പോലെ ഒരു തോന്നി ഭയങ്കര ഒരു മഞ്ഞ് ഒരു മറ പോല നമുക്ക് ഫിലീതു ഏകദേശം മൂന്ന് മണിയോടെ ഞങ്ങള് ഞങ്ങള് എവിടെയാണോ താമസിക്കാനുദ്ദേശിച്ചത് അവിടെ മൂന്ന് മണി ആയപ്പോള് ഞങ്ങള് എത്തി എത്തിയതോടെ തന്നെ എല്ലാവർക്കും ഇത്രയും ദൂരം ട്രാവലീതേൻ്റെ ഒരു ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന്തന്നെ കയറി അങ്ങ് കിടന്നുറങ്ങി ഉറങ്ങിയശേഷം ഞങ്ങള് ഏകദേശം പത്തു മണി ആവാറായി എണീറ്റപ്പോള്ത്തന്നെ ഞങ്ങളപ്പോള് രാവിലെ ഞങ്ങള്ക്ക് പല സ്ഥലങ്ങളും കാണാന് പോകണമെന്ന് വിചാരിച്ചതാണ് അതെല്ലാം മിസ്സായിപ്പോയി ഞങ്ങള്ക്ക് പിന്നേ അയാള് ഞങ്ങളെ കൂടെ വന്ന പുള്ളി പറഞ്ഞു കുഴപ്പമില്ല നിങ്ങളെ എവിടെ വേണോ ഞങ്ങള് കൊണ്ടുപൊയ്ക്കോളാം പയ്യെ എണീറ്റാല് മതി പിന്നെ പത്തുമണിക്ക് ഞങ്ങള് എണിച്ചിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചശേഷമാണ് അവിടെയുള്ള പുൽമേടുകളൊക്കെ ഞങ്ങള് കാണാൻപോയത് അത് പുൽമേടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരുന്നു ആക്ച്വലി പുൽമേടൊക്കെ ഒരു രാവിലെ കാണേണ്ടതായിരുന്നു അതുകൊണ്ട് പുൽമേടിലൊന്നും നമ്മളധികം നിന്നില്ല പെട്ടെന്ന് തിരിച്ചുപോന്നു അതിനുശേഷം ഞങ്ങള് അവിടുന്ന് നേരെ വേറെ പൈൻ മരങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ പോയി അതിനുശേഷം കുറെ കുറെ ഇടയ്ക്കിടയ്ക്ക് കുറെ ചെറിയ ചെറിയ വാട്ടർ ഫോൾസ് പോലെ വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി അവിടെല്ലാം കുറച്ചുനേരം നിന്ന് എല്ലാം കണ്ടു ഞങ്ങള് അതിനിടയില് വച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയും ശരീരവേദനയും വന്നു പിന്നെ ഒരു ഗുളിക കഴിച്ച് ശേഷമാണ് ഞാനൊന്ന് ഓക്കേ ആയത് അതിനിടയില് എനിക്കൊന്നും കഴിക്കാനും പറ്റിയില്ല ഉച്ചയ്ക്കത്തെ ഫുഡ് അവിടുന്ന് അവിടുന്ന് അറേഞ്ചേയ്ത് തന്നതാണ് ഞങ്ങള്ക്കതത്ര ഇഷ്ടപ്പെട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ല രാത്രി ഞങ്ങള് ക്യാമ്പ് ഫയര് പോലെ അറേഞ്ചേയ്തിട്ട് ഫുഡ് ഞങ്ങള് തന്നെ പ്രിപ്പേറീയ്ത് ചിക്കനൊക്ക ഞങ്ങള് തന്നെ ഉണ്ടാക്കി കഴിച്ചു അപ്പോള് രാത്രിത്തെ ഫൂഡൊക്കെ വളരെ നല്ലതായിരുന്നു അതെല്ലാം ഞങ്ങള്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പോള് പിറ്റേ ദിവസം ഞങ്ങളടുത്ത് പറഞ്ഞു ഞങ്ങള് അവിടുന്ന് വേറൊരു ഇടുക്കിയിലോട്ട് പോവാമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങള്ക്ക് പിന്നെ അവിടെനിന്ന് ഇടുക്കിയിലോട്ട് ഏകദേശം പോകണമെങ്കില് പിന്നെയും ഒരു ഇരുന്നൂറ് കിലോ മീറ്റർ ട്രാവലീയണോന്ന് പറഞ്ഞേപ്പിന്നെ ഞങ്ങളാ യാത്ര വേണ്ടെന്നുവച്ചു എന്നിട്ട് ഞങ്ങളവിടെനിന്ന് തിരിച്ചു പോരാം എന്നുള്ളതില് പിറ്റേദിവസം അവിടെ ഒന്ന് രണ്ട് പ്ലേസുകളില് വെള്ളച്ചാട്ടം കണ്ടു അവിടുന്ന് ഞങ്ങള് നേരേ ആലപ്പുഴയ്ക്ക് പോയി ആലപ്പുഴയ്ക്ക് പോയി അവിടെനിന്ന് ഞങ്ങള് ഒരു ബോട്ടിനകത്തുള്ള ഒരു റെസ്റ്റോറൻറ്റില്നിന്ന് ഫുഡ് കഴിച്ച് അവിടത്തെ ഷാപ്പിലെ കറികളൊക്കെ വച്ചിട്ട് ഒരു പ്രത്യേകതരം ഊണൊക്കെ ആയിരുന്നു അതില് കുറേ മൽസ്യവിഭവങ്ങളും ചിക്കൻ ഐറ്റംസും ബീഫ് ഐറ്റംസും അങ്ങനെ പ്രത്യേകം പ്രത്യേകം ഒരുപാട് ഐറ്റംസുണ്ടായിരുന്നു അത് കായലിൻറ്റെ നടുക്കുള്ള ഒരു ബോട്ടിലായിരുന്നു ഈ ഫുഡ്ഡൊക്കെ ഞങ്ങള്ക്ക് അറേഞ്ചേയ്ത അത് വളരെ നല്ലൊരു എക്സ്സ്പീരിയൻസായിരുന്നു അത് ഞങ്ങള്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൊത്തത്തില് ട്രിപ്പ് വളരെ അടിപൊളി ആയിരുന്നു ഞങ്ങളെല്ലാരും ഭയങ്കര എൻജോയ് ചെയ്തു സൂപ്പർ ഫൺ ആയിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും ഓർക്കാന് പറ്റിയ ഒരു ട്രിപ്പായിരുന്നു